സോഷ്യൽ മീഡിയാസിന് വളരെ ഇമ്പോർട്ടൻറ്റുള്ള കാലഘട്ടമാണ് ഇത് അതുപോലെ ഇപ്പോ ഓരോ വെറൈറ്റി കണ്ടൻസുമായി ആളുകൾ തരംഗമായി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഇപ്പോൾ ഫുഡ് ഐറ്റംസ് വ്ളോഗ് കാര്യങ്ങൾ ഓഫ് റോഡ് എക്സട്ര നമ്മടെ മുൻപിൽ തന്നെ കാണാവുന്നതാണ് അപ്പോൾ അതുപോലെ ഉള്ള കണ്ടൻറ് വച്ച് ആളുകളിലേക്ക് എത്തിക്കുകയും അവർക്ക് അതിനെ കുറിച്ചുള്ള ഐഡിയ ഐഡിയ കിട്ടാനിത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഈ കഴിവുകൾ തെളിയിക്കാനായിട്ട് മിമിക്രി പാട്ട് പാടുക നൃത്തം ചെയ്യുക അതുപോലെ അഭിനയിക്കുക തുടങ്ങിയതൊക്കെ കാഴ്ചവച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും മാക്സിമം അത് ആളുകളിലേക്ക് എത്തിക്കാനും അതുപോലെ അത് അവരെ സോഷ്യൽ മീഡിയ ഹെല്പ് ചെയ്യുന്നുണ്ട്